എനിക്ക് ഏറ്റവും കൂതൽ ഇഷ്ടം ഉണ്ടാക്കാൻ ഇഷ്ടം എന്ന് വെച്ചാൽ ഒന്ന് ഓംലെറ്റ് പിന്നെ മുട്ട കൊണ്ട് മുട്ട വറവ് പിന്നെ മാഗ്ഗി ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് പെട്ടെന്നു തന്നെ നമുക്ക് വേഗം ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന വളരേ ഈ എന്താ പറയുക വേഗത്തിൽ പിന്നെ അത് മറ്റുള്ളപോലെ ഭയങ്കര എന്താ പറയുക കൂടുതൽ സമയം എടുക്കേണ്ട കൂടുതൽ കഷ്ടപ്പെടേണ്ട വേഗത്തിൽ തന്നെ നമ്മൾക്കുണ്ടാക്കാം കഴിക്കാം അതൊക്കെ കൊണ്ടുതന്നെയാണ് എനിക്ക് ഓംലെറ്റും മുട്ട വറവും പിന്ന മാഗ്ഗിയൊക്കെ ഉണ്ടാക്കാനിഷ്ടം അത് വെറും ഒരു എന്താ പറയുക ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് അത്രയേ എടുക്കുകയുള്ളു ഏറിപ്പോയാൽ അത്രയേ ഉണ്ടാവുകയുള്ളു പിന്നത് വളരെ കഴിക്കാനും വളരെ നല്ല രസമാണ് നല്ല രുചിയാണ് അതു കഴിക്കാനും അതുകൊണ്ടൊക്കെ തന്നെയാണ് എനിക്ക് ഓംലെറ്റൊക്കെ വേഗത്തിൽ ഉണ്ടാക്കാനിഷ്ടം പിന്നത് പിന്നെ അതെന്ന് വെച്ചാൽ ഏതിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും ചോറിന്റൊപ്പരം മുട്ടവറവ് ഓംലെറ്റ് ഒക്കെ കഴിക്കുകയാണെങ്കിൽ വളരേ രുചി ആയിരിക്കും പിന്നെ കഞ്ഞീന്റൊപ്പരവും കൂട്ടാം ഇപ്പം ഏതിന്റൊപ്പരമായാലും അതു കൂട്ടാം പിന്നെ മേഗ്ഗി ആണെങ്കിൽ തന്നെ ഒന്നുമില്ലെങ്കിൽ തന്നെ മാഗ്ഗി തിന്നിട്ട് നമ്മൾക്ക് കിടക്കാം വയറ് നിറയും അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത് എനിക്ക് ഈ പാചകമൊക്കെ ഇഷ്ടം വളരേ വളരേ എന്താ പറയുക സമയക്കുറവ് അധികം കൂടുതൽ സമയം എടുത്ത് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ തളരൂകയേ ഇല്ല അതു ചെയ്തിട്ട്